നമ്മുടെ പ്രദേശത്ത് നമ്മൾ പത്രങ്ങൾ നോക്കണ് പറയുമ്പോൾ ഇപ്പോൾ മലയാള മനോരമ മാതൃഭൂമി ഹിന്ദു ദിന പത്രമായ മറ്റേ നമ്മുടെ ജന്മഭൂമി ഉണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെന്നു പറയുമ്പോൾ ദേശാഭിമാനി വരുന്നുണ്ട് പിന്നേ രാജ രാജ രാജഹംസം ദീപിക പിന്നെ നമ്മുടെ സായാഹ്ന കുറേ സായാഹ്ന പത്രങ്ങൾ കുറേയെണ്ണം ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇപ്പോൾ മലയാള മനോരമയും അതുപോലെ ജന്മഭൂമിയും ഒക്കെയാണ് ഞാനും വായിക്കുന്നത് എന്താ വച്ചു കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് നമുക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും പിന്നെ നമുക്ക് കൂടുതലായിട്ട് അറിയാം പെട്ടെന്ന് നമുക്ക് മറ്റു വാർത്തകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക അതായത് അത്ര അധികം അതായ മറ്റേ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അതായത് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോളങ്ങളും ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലും അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ആ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ എന്താ പറയുക അതിലെനിക്ക് ഇഷ്ടപ്പെട്ട കോളം ഞാൻ അധികം നമ്മളിപ്പോൾ മുമ്പൊക്കെ സ്പോർട്സ് പേജ് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെയിപ്പോൾ നമ്മളതിൻ്റെ ആമുഖം അത്യാവശ്യം നല്ല ഇപ്പോൾ പുതിയ പുതിയ ഓരോ ഹെഡ്ഡിങ്ങ് അങ്ങനെ എന്തെങ്കിലും നടന്ന വാർത്തകൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരോ ആമുഖവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട് പിന്നെ നമ്മളതിൽ പഠിപ്പുര കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത് അതൊരു നല്ല കോളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്